നമ്മുടെ പ്രദേശത്ത് ഗതാഗതമാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ഗതാഗത മാർഗ്ഗങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പ്രദേശത്ത് ഉണ്ട് ഇപ്പോൾ നമുക്ക് ബോട്ടിലുടെ പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുണ്ട് പിന്നെ നമുക്ക് റെയിൽവേ നമുക്ക് റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള ഏറ്റവും വലിയ ഒരു റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട് നമുക്ക് ഇപ്പോൾ എവിടെ വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് കേരളത്തിന് പുറത്ത് പോകാനും കേരളത്തിന് അകത്ത് പോകാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇതാണ് കുറച്ചുകൂടെ റെയിൽവേയാണ് കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ളത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേക്ക് നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ കുറവാണ് ഇപ്പോൾ നമുക്ക് ബസും വഴിയൊക്കെ പോകുകയാണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ ജി എസ് ടി അങ്ങനെ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ കേരള സർക്കാര് ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ടും റെയിൽവേയാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നുന്നത് പിന്നെ നമുക്ക് വിമാനങ്ങളുണ്ട് വിമാനത്താവളമുണ്ട് ഇപ്പോൾ അവിടെ കരിപ്പൂർ വിമാനത്താവളം ഒക്കെയാണ് നമുക്ക് ഉള്ളത് അപ്പോൾ അവിടുന്ന് നമുക്ക് ഇപ്പോൾ ഗൾഫിലേക്കും ഇപ്പോൾ എറണാകുളത്തേക്ക് തിരുവനന്തപുരത്തേക്ക് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിമാനങ്ങളും യൂസ് ചെയ്യാവുന്നതാണ്